ഇപ്പം ചെടികളൊക്കെ ഞമ്മള് നട്ട് ഞമ്മള് നട്ടിട്ട് ഒരു കെയറിങ് കൊടുക്കാണ്ട് ഉണ്ടാവുന്നതാണെങ്കിൽ നമുക്ക് അത്ര സന്തോഷം അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മള് എന്നും വെള്ളമൊക്കെ ഒഴിച്ച് അതിന് വളവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അതിനെ നോക്കി നമുക്ക് അതിന്ന് ഒരു പൂ വരുന്നതോ അല്ലെങ്കിൽ കായ് ഉണ്ടാകുന്നതോ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകുന്നതാണ് അപ്പം നമ്മള് അതിനകത്ത് ഒരു പൂമ്പാറ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മരത്തില് ഒരു കിളി വന്നു കൂടു കൂട്ടിയാൽ പോലും നമ്മള് നമ്മള് നട്ട് വളർത്തിയത് ആണല്ലോ അങ്ങനെ ഒരു ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനസ് എന്താ പറയുക അതിൽ നിന്നൊക്കെ ആണെന്ന് വിചാരിക്കാം കാരണം നമുക്ക് നമ്മള് നട്ടു ഒരു ചെറിയ എന്താ ചെടിക്കു പോലും ഒരു പൂ മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സന്തോഷമായിരിക്കും അതില് ഏറെ നമ്മള് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വാടിയാൽ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കും നമ്മുടെ എന്താ പറയുക നമ്മള് അത് എത്ര മനോഹരമായിട്ട് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല അതേപോലെ ആയിരിക്കും അനുഭവം ഉണ്ടാകുന്നത്